കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി നമ്മുടെ ഇന്ത്യയില് ഉയര്ന്ന് വന്ന ജോലികളില് ഒന്നാണ് യൂറ്റൂബര് എന്ന് പറയുന്നത് ഫോണില് നമുക്ക് ഏറെ സുപരിചിതമായ ഒരു ആപ്പാണ് യൂറ്റൂബെന്ന് പറയുന്നത് ആ ആപ്പിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വീഡിയോകള് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവരെ ആണ് ഈ യൂറ്റൂബര് എന്ന് പറയുന്നത് കൊറോണ എന്ന മഹാമാരി നമ്മെ ബാധിക്കുന്നതിന് മുമ്പ് വരെ ഈ ഒരു ജോലിയിലേക്ക് ആള്ക്കാരുടെ എണ്ണം വളരെ കുറവ് തന്നെ ആയിരുന്നു പക്ഷെ എന്നാൽ കൊറോണക്ക് ശേഷം ഈ ഒരു യൂറ്റൂബിലേക്ക് വന്ന ആള്ക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലുമാണ് കൊറോണ നമ്മേയെല്ലാം ബാധിച്ച് നാം ലോക്ക്ഡൗണ് കാരണം വീട്ടില് ബന്ധനത്തിലായപ്പോള് ജോലിക്ക് പോകാന് പറ്റാത്ത സാഹചര്യത്തിലാണ് ഓരോരുരും യൂറ്റൂബിലേക്ക് കണ്ടെന്റ് ഉണ്ടാക്കാനും യൂറ്റൂബിലേക്ക് വീഡ്യോ അയക്കാനും തുടങ്ങുന്നത് അതിലൂടെ അവര്ക്ക് കിട്ടുന്ന ഒരു ജീവിത മാര്ഗവും ആണ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇപ്പോള് ഇങ്ങനെ ജോലി സാധ്യത കൂടി വന്നത് ജോലി സാധ്യത കൂടിയത് കൊണ്ടും അതിലേക്ക് വരുന്ന ആള്ക്കാരുടെ എണ്ണം കൂടിയത് കൊണ്ടും ഇപ്പോൾ യൂറ്റൂബില് കാണുന്ന പല വീഡിയോയും ആദ്യം നമുക്ക് കണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലുണ്ടായിരുന്ന ഒരു നിലവാരം ഇല്ല എന്നു തന്നെ പറയുന്നതാണ് ശരി പലരും പലരുടെ കുടുംബത്തിലെ കാര്യങ്ങളാണ് യൂറ്റൂബിലേക്ക് എടുത്ത് ഇടുന്നത് പണ്ട് എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് നടക്കുന്നത് അവരുടെ കുടുംബത്തിനകത്തെ രഹസ്യം തന്നെയാണ് പക്ഷെ ഇന്ന് കുടുംബത്തിലെ ഓരോ ചെറിയ വഴക്കും അവർ യൂറ്റൂബിലേക്ക് വീഡ്യോ ആയിട്ട് അയക്കുമ്പോള് അത് പരസ്യമാവുകയും യൂറ്റൂബിൻ്റെ ഒരു നിലവാരം കുറയുക തന്നെ ചെയ്യുകയും ഉണ്ട് എന്നാല് യൂറ്റൂബിന്റെ നല്ല വശവും ഉണ്ട് എന്നുള്ളതാണ് വേറെ കാര്യം പല യൂറ്റൂബറും അവര്ക്ക് ഉണ്ടാകുന്ന അല്ലെങ്കില് അവര്ക്ക് അനുഭവം ഉള്ള കാര്യങ്ങളാണ് യൂറ്റൂബിലിടുന്നത് ചിലപ്പോള് അത് അവരുടെ മുടി വളര്ച്ചക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാവാം അല്ലെങ്കില് ചിലർ അവരുടെ സൗന്ദര്യ സംരക്ഷണമാകാം പറയുന്നത് അല്ലെങ്കില് പഠിത്തം അങ്ങനെ കൊണ്ടുപോകണം എന്നും പറയുന്നവരുണ്ട് അല്ലെങ്കില് ലോക്ക്ഡൗണ് സമയത്ത് കുട്ടികള്ക്ക് പഠിക്കുവാനായിട്ട് അദ്ധ്യാപകര് പോലും വീഡിയോ ചെയ്ത് യൂറ്റൂബിൽ ഇടുന്നത് ഞാന് കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാന് കാണപ്പെടുന്നത് കാണുന്നത്